ഇന്ത്യയിലെ ഒരുപാട് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ട് ഇന്ന് നമുക്ക് ഗതാഗത മാർഗ്ഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആണ് ഇന്ന് കടൽ മാർഗ്ഗങ്ങളിലൂടെയും കര മാർഗ്ഗങ്ങളിലൂടെയും റോഡിലൂടെയും അതുപോലെ റെയിൽ റെയിൽ ട്രെയിനിലൂടെയും അതുപോലെ വിമാനങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് ഗതാഗതങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് ഇപ്പം കടൽ മാർഗ്ഗങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് ചരക്കുകൾ രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തുള്ള ഇപ്പം അടുത്തുള്ള പ്രദേശങ്ങളിൽ ഒക്കെ അല്ലെങ്കിൽ അടുത്തുള്ള ജില്ലകളിൽ ഒക്കെ പോകാനായിട്ട് നമ്മൾ റോഡിലൂടെയുള്ള ഗതാഗതം തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കൺട്രികളിൽ നിന്നും മറ്റുള്ള കൺട്രികളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിനും അതുപോലെ ട്രെയിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വിമാനത്തിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ചേര് എത്തിച്ചേരാൻ പറ്റും എന്നാൽ കടൽ മാർഗ്ഗങ്ങളിലൂടെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാലം പിടിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി അല്ലെങ്കിൽ ഗതാഗത യാത്ര ചെയ്യുമ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്നു പറയുന്നത് പല ഗതാഗത മാർഗ്ഗങ്ങളിലൂടെയും പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പം കടലിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലുള്ള മാർഗമാണ് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിലൂടെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ അല്ലെങ്കിൽ കപ്പലിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിലൂടെ ആകുമ്പോൾ കപ്പലു മറിയുമോ വെള്ളത്തിൽ വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അതുപോലെ റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ വാഹനങ്ങളും ആയിട്ട് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് അതുപോലെത്തന്നെ ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് തോന്നിയാൽ എന്ന് വിചാരിച്ചാൽ നമുക്ക് വലിയ സിറ്റികളിൽ ഒന്നും പോയാൽ റോഡിലൂടെ ഉള്ള മാർഗങ്ങളിലൂടെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റില്ല നമ്മളിപ്പോൾ എത്തിച്ചേരണമെങ്കിൽ തന്നെ ഒരുപാട് സമയം മുമ്പ് തന്നെ ഇറങ്ങിയാൽ മാത്രമേ ബ്ലോക്ക് കൂടാതെ നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ അതുപോലെ വിമാനത്തിലൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എയറിലൂടെ പോകുന്നതു കൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്കാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് വിമാനങ്ങളിൽ പോകുന്ന അത്ര പെട്ടന്ന് തന്നെ എത്താൻ പറ്റില്ല എങ്കിൽ പോലും മറ്റുള്ള മാർഗ്ഗങ്ങളിലൂടെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ ഒക്കെ നേരിടുന്നുണ്ട്